ഹലോ ദിസ് ഇസ് വിബ്ജിയോർ ഇവൻറ് മാനേജ്മെൻറ് കമ്പനി മാഡം പറയൂ ആ പറയൂ മാം

ഉറപ്പായും മാം എന്ത് തരം മാ മാര്യേജ് ആണ് മാം ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ

അതെ അതെ ഞങ്ങൾ കാറ്ററിംഗ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റിന് ഞങ്ങൾ ഇരുനൂറ് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കു ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത് ഇരുനൂറിൽ പറയുമ്പോൾ സ്റ്റാർട്ടേഴ്സും ഉണ്ടാകും അതുപോലെ അതിൻ്റെ ആ കഴിയുമ്പോൾ ഞങ്ങൾ ഐസ്ക്രീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം അതിനോടൊപ്പം ഗുലാബ് ജാമുനും ഉണ്ടായിരിക്കുന്നതാണ് അത് കൂടാതെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞതുപോലെ ഫ്ലവർ കൊണ്ടുള്ള ഡെക്കറേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പേസ്റ്റൽ ആണോ ഉദ്ദേശിക്കുന്നത് അതോ കുറച്ച് കൂടെ വൈബ്രൻറ് ആയിട്ടുള്ളതാണോ ഉദ്ദേശിക്കുന്നതെന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഉറപ്പായും മാം ഓക്കെ ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടോ

ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം വേണമെങ്കിൽ ഞങ്ങൾ ക്യാമറമാനേയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എത്ര വേണം എന്നുള്ള എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം ഏതൊക്കെ ക്യാമറ വേണം എന്ന് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും

അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മാം വേറെ ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടോ ഓക്കെ അത് ഞങ്ങൾ നോക്കുന്നതായിരിക്കും ഇത് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉടനെ തന്നെ മറുപടി തരേണ്ടതാണ്